അയ്യോ യുവാക്കൾടെ തൊഴിലില്ലായ്മന്നു പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ എങ്ങനാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിലൊന്നും തൊഴിലില്ല ഒന്നാമത് അപ്പോൾ ഈ കെട്ടുപണി അങ്ങനത്തെ പണിക്കൊക്കെ പോകുന്നത് അത് വല്ലപ്പോഴൊക്കെ ഉണ്ടാവുളളു പണികൾ പിന്നെ പി എസ് സിയൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ പി എസ് സിക്ക് ഇപ്പോൾ രണ്ടും മൂന്നും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മളിപ്പം എഴുതി ചിലപ്പം കിട്ടണം എന്ന് ഒന്നും ഇല്ല ഭാഗ്യള്ളോർക്കൊക്കെയാണ് കിട്ടുക അപ്പം നല്ലോണം അപ്പം തൊഴില്ലായ്മ വല്ലാണ്ട് കൂടി വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ആർമിലെക്കൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാല് വർഷം കഴിഞ്ഞാപ്പിന്നെ വീട്ടിലിരിക്കേണ്ടൊരവസ്ഥയാണ് നാല് വർഷം കഴിഞ്ഞാൽ പിന്നെ അവരെ ഒഴിവാക്കി വിട അങ്ങനത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ആർമിൽ നടക്കുന്നത് അപ്പം തൊഴിലില്ലായ്മ വല്ലണ്ട് കൂടി വരുന്നുണ്ട് അപ്പോൾ തൊഴിലില്ലായ്മയൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടിട്ട് സർക്കാർ കൂടുതലായിട്ടും കുറെ നമ്മുടെ എന്താ പറയാ യുവാക്കൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കുവാണെങ്കിൽ സർക്കാര്ടെ രീതിയിൽ തന്നെ സൃഷ്ടിക്കുവാണേൽ കുറച്ചുടെ നല്ലതാണ് അപ്പം എല്ലാവർക്കും തൊഴിലും കിട്ടണം ഒപ്പം വരുമാനോം ഉണ്ടാവണം അപ്പം അതൊന്നു ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും